നമ്മുടെ കേരളത്തിൽ ജീവിച്ചു വളർന്ന ഏതൊരാൾക്കും ഏറ്റവും കൂടുതൽ സിമ്പിളായിട്ടുള്ള ഭാഷയായിരിക്കും മലയാളം ഭാഷ എഴുതാനും സംസാരിക്കുമ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഭാഷയാണേത് നമ്മുടെ ഈ മലയാള ഭാഷയെന്നു പറയുന്നത് ഓക്കെ കാരണം കാരണം എന്താ വെച്ചാൽ ഇത് ഒരു ഭാഷ എന്നുള്ളത് ഒരു വെറുമൊരു ഭാഷയായിട്ടു മാത്രം നമ്മൾ കണക്കു കൂട്ടേണ്ടതല്ല കാരണം ഒരു സംസ്കാരത്തിൻ്റെ തന്നെ ആശയ വിനിമയ വിനിമയത്തിൻ്റെ മാർഗ്ഗമായിട്ടാണ് ഒരു മലയാള മലയാള ഭാഷയെ നമ്മൾ കണക്കാക്കേണ്ടത് കാരണം എന്താ വെച്ചാൽ ബാക്കിയുള്ള ഭാഷകളൊക്കെ കുറേ സംസ്കാരങ്ങളുണ്ടായ ഭാഷ കുറേ സംസ്കാരങ്ങൾ അതായത് കുറേ കമ്മ്യൂണിറ്റികൾ ബാക്കിയുള്ള ഭാഷകളൊക്കെ യൂസ് ചെയ്തിരുന്നു എന്നിട്ട് ഈ മല പക്ഷേ ഈ മലയാള ഭാഷ എന്നുള്ളത് ഒരു കേരളത്തില ആൾക്കാർ മാത്രം കേരള ലക്ഷദ്വീപ് ഈ ഒരു ഭാഗത്തു മാത്രം ഒതുങ്ങിക്കൂടുന്ന ഇവ ഇവിടുത്തെ ആൾക്കാരെ മാത്രമൊരു പ്രധാന സ്വകാര്യ അഹങ്കാരമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു ഭാഷയാണത് നമ്മളുടെ മലയാള ഭാഷ എന്നു പറയുന്നത് അതു കൊണ്ടു തന്നെ നമ്മളുടെ ഈ ഒരു സംസ്കാരത്തിൽ നമ്മളുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ജീവിച്ചു വളർന്ന ഒരാൾക്കും മലയാള ഭാഷ എഴുതാനോ സംസാരിക്കാനോ ഒരിക്കലും ബുദ്ധിമുട്ടുണ്ടാകില്ല അതുപോലെ തന്നെ സേം അവസ്ഥ തന്നെയാണ് നമുക്കെല്ലാവർക്കും ഉണ്ടാകുക നമുക്ക് ആർക്കും എന്തു ചെയ്യില്ല മലയാളം സംസാരിക്കാനോ അല്ലെങ്കിൽ എഴുതാനോ ബുദ്ധിമുട്ടുണ്ടാകില്ല നേരെ മറിച്ച് പുറത്തു നിന്ന് വരുന്ന വേറൊരു കമ്മ്യൂണിറ്റി ഉണ്ട് വേറൊരു കൺട്രിയിൽ നിന്നു വരുന്ന ഒരാളാണെങ്കിൽ വേറൊരു രാജ്യത്ത് നിന്നു വരുന്ന ഒരാളാണെങ്കിൽ അവർ മെയിൻലി ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ടായിട്ടുണ്ടാകുക ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ടുണ്ടാ ഉള്ളൊരു സംഭവമാകും എന്ത് ഇവർ മലയാള ഭാഷ സംസാരിക്കുക എന്നുള്ളത് കാരണം ഒരു ഭാഗത്തു നിന്ന് സംസാരിക്കുമ്പോഴുള്ള ഭാഷ പോലെ മറ്റൊരു ഭാഗത്തു നിന്ന് സംസാരിക്കുന്നത് മലയാള ഭാഷ മലയാള ഭാഷ തന്നെ ഇന്ത്യയിലെ ഭാഷമാതിരി കുറേ വൈവിധ്യമാർന്നിട്ടുള്ളൊരു ഭാഷയാണ് ഇവിടുത്തെ കൊളോക്കിയൽ ലാംഗ്വേജ് കൂടിയിട്ട് ഓരോ ഭാഗത്തും ഓരോ ഭാ സ്റ്റൈലിൽ പറയുന്നൊരു ഭാഷയാണിത് മലയാളം ഭാഷ അപ്പോൾ ഇവിടെ ജീവിച്ച് ഇവിടെ വളർന്ന ഒരാൾക്കും എന്തുണ്ടാകില്ല മലയാള ഭാഷ സംസാരിക്കാൻ ഒരിക്കലും ഒരു ബുദ്ധിമുട്ടോ എഴുതാനോ ഒരു ബുദ്ധിമുട്ടോ എന്തു ചെയ്യില്ല ഉണ്ടാകില്ല വ നേരെ മറിച്ച് പുറത്തു നിന്നു വന്ന ആ ആളാണെങ്കിൽ ഉണ്ടാകും സ്വാഭാവികമായിട്ടും അവരുടേതായ ഓരോ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും

അതിനു പുറമേ തന്നെ നമ്മളീ ഈ മലയാള ഭാഷ ഉത്ഭവിക്കുന്നത് ഏകദേശം ഒൻപത് ടു പതിനൊന്നാം പതിമൂന്നാം നൂറ്റാണ്ട് ഈയൊരു നൂറ്റാണ്ടിൻ്റെ ഉള്ളിലാണ് മലയാള ഭാഷ അത്രയും കൂടുതൽ പുരോഗമിച്ച് ഉണ്ടായിട്ട് പുരോഗമിച്ചു വന്നത് അതുപോലെ തന്നെ ബ ബഷീർ ബഷീർ ഇന്ന കാലത്ത് ബഷീർ അതേപോലെ തന്നെ പണ്ട് വാൽമീകി മുതൽ വൈക്കം മുഹ മുഹമ്മദ് ബഷീർ വരെ കുറേ ഒരുപാട് നോവലിസ്റ്റുകൾ കഥ എഴുതുന്ന ആൾക്കാർ നാടകം എഴുതിയ ആൾക്കാർ ഇങ്ങനെ കുറേ ആൾക്കാർ എന്ത് എന്തു ചെയ്തിട്ടുണ്ട് ഈ ഒരു മലയാള ഭാഷയിൽ കുറേ കൃതികളും അതേപോലെ തന്നെ ബുക്കുകളൊക്കെ എന്തു ചെയ്തിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഈ മലയാള ഭാഷേൻ്റെ ഒരു ശബ്ദത്തിൻ്റെ ഒരു സൗന്ദര്യം അതിൻ്റെ ഓരോ ഉച്ഛാരണ മുറിവുകളും ശൈലികളും ഒരു ഏതൊരു പുറത്തു നിന്നുള്ള ആളെയും എന്ത് നല്ലോണം അത്ഭുതപ്പെടുത്തുന്നൊരു സാധനമാണ് എന്ത് ഇതിൻ്റെ ശബ്ദ സൗന്ദര്യം ഇതിൻ്റെ മുറഒരു നമ്മളൊരു മുറികളൊക്കെ വെക്കുമ്പോൾ ആ ഒരു സംഭവമുണ്ട് അത് പുറത്തു നിന്നു വരുന്ന ഒരാളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു സാ സാധനമാണ് എന്ത് ഇത്